നമ്മളിപ്പോൾ രചനാപ്രക്രിയ എങ്ങനെയാണെന്ന് പറഞ്ഞാല് ഇപ്പോൾ നമുക്ക് കാര്യം എഴുതികാണിക്കല് നമ്മള് നമ്മളിപ്പോൾ ആ ഒരു മേഖലയിൽ നമ്മളെക്കാൾ എക്സ്പീരിയൻസായി അറിവും പ്രഗത്ഭതയും കൂടുതലലുള്ള ഒരാളുടെ ഉപദേശങ്ങൾ തേടുക എന്നത് സർവ്വസാദാരണമായൊരു കാര്യമാണ് കാരണം നമ്മളെക്കാൾ അറിയാവുന്ന ഒരു വ്യക്തിയുടെ ഉപദേശങ്ങൾ കാരണം നമ്മൾ ഏതു മേഖലയിൽ ആണെങ്കിലും രചന മേഖലയാണെങ്കിലും എഴുത്തിൻ്റെ മേഖലയാണെങ്കിൽ നമുക്കത് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ആദ്യം ഡ്രാഫ്റ്റ് എഴുതുന്നതെന്ന് പറഞ്ഞാല് പൊതുവെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഒരു ഏതൊരു കാ കാര്യമാണെങ്കിലും എഴുതുന്നത് ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചാണ് ആ ആശയങ്ങളെന്നു പർണ്ണാ നമ്മള് കാ നമ്മള് സ്വയം കണ്ടെത്തണം നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളെയാണ് ആശയങ്ങളെന്നു പറയുന്നത് ഒരിക്കലും ആശയങ്ങളുടെ പുറകെ പോകരുത് ആശയങ്ങൾ ന നമ്മളെത്തേടി വരണം ആ ആ അനുഭവത്തിൽ നിന്ന് വേണം നമ്മൾ കാര്യം എഴുതിയെടുക്കാൻ എഴുത്ത് എന്ന് പറഞ്ഞാൽ അത്രവലിയ സംഭവമൊന്നുമല്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് എഴുതാം പക്ഷേ ഭാവന എന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്